ഹലോ മൂന്നാറ് ഓട്ടോ ഡ്രൈവറാണോ ആ ഞാൻ അങ്ങോട്ടൊന്ന് യാത്ര വരാനെനു അപ്പോൾ അവിടുള്ള സ്ഥലങ്ങളെക്കുറിച്ചൊക്കെയൊന്ന് അറിയാനെനു ആ ആ ആ

ആ ആ ആ ആ അങ്ങനെ അങ്ങനെത്തയൊക്കെ ഓട്ടോയിൽ പോണെങ്കിലെങ്ങനെ ചാർജ്ജൊക്കെ എങ്ങനെ അതെങ്ങനെയാണ് അങ്ങോട്ട് ആ ആ ആ അതൊക്കെ ഇങ്ങനെയൊന്ന ആ ആ ആ

ഞങ്ങൾക്കീ സ്ഥലങ്ങളൊക്കെ കാണാനിനൂ

ആ ആ അപ്പയിനേകദേശം എത്ര രൂപയാണ് അങ്ങനക്കെ അറിയുവോ അറിയാൻ പറ്റുവോ ആ മൊത്തമല്ലേ അതിലീ സ്ഥലങ്ങളൊക്കെ പെടും ആ ആ ആ ഞാനേ അതൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടീട്ടിന്നുണ്ടല്ലോ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ ഞാനീ നമ്പർൽ അങ്ങോട്ട് വിളിക്കാം അപ്പമെനിക്ക് ആ ആ ആ ഓ ആ ആ ആയിക്കോട്ടെ ഓക്കെ ശരി